സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളെ പറ്റി പറയുമ്പോൾ അവിടുത്തെ അക്ഷരങ്ങൾ ഓരോ പേജ് ഓരോ പേജുകളിലേയും അക്ഷരങ്ങൾ ഒട്ടും വ്യക്തമല്ലായിരുന്നു നമുക്ക് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് വായിക്കാനേ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ അത് ഓരോ പേജസിനും ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു വരയ്ക്കുമ്പോൾ തന്നെ പറിഞ്ഞു പോവുന്ന അല്ലെങ്കിൽ കീറിപ്പോവുന്ന ടൈപ്പ് പേജ് ആയിരുന്നു മൊത്തം പിന്നെ നടുക്കുകൂടെയുള്ള സ്റ്റേപ്ലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ സ്റ്റേപ്ലർ എപ്പോൾ വേണമെങ്കിലും വിട്ടുപോവാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഒരു പത്ത് തവണ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് പെട്ടെന്ന് തന്നെ ഊരി പോ പെട്ടെന്ന് തന്നെ ഊരി പോകാൻ പാകത്തിനാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ടെക്സ്റ്റ്ബുക്ക് കിട്ടിയപ്പോൾ തന്നെ പല പേജുകളും മടങ്ങി പല പേജുകളിലും തമ്മിൽ ഒട്ടി ഒട്ടി ആയിരുന്നു ഇരുന്നത് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് പല പേജുകളും മിസ്സ് ആയി പോവുകയും ചെയ്തു പല പേജുകളിലെയും പല പ്ര ബുക്കുകളുടെയും പല പേജുകളും കിട്ടുന്നില്ലായിരുന്നു വാ ചിലർക്ക് കിട്ടുന്ന ബുക്കിൽ എല്ലാ പേജുമുണ്ട് ചിലർക്ക് കിട്ടുന്ന ബുക്കിൽ എല്ലാ പേജുമില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ ബുക്കിൻ്റെ ക്വാളിറ്റി വളരെ വളരെ മോശമായിരുന്നു അതുപോലെ തന്നെ ബുക്ക് ഞങ്ങൾ വിചാരിച്ച രീതിയിലും അല്ല കിട്ടിയത് ഞങ്ങൾ ബുക്ക് കിട്ടേണ്ടതിലും ഒരു മൂന്നുമാസം വൈകിയാണ് നമുക്ക് ബുക്ക് ലഭ്യമായത്